ഗ്രാമത്തിലും പട്ടണത്തിലും കളികള് തമ്മിലുള്ള വ്യത്യാസം എന്നതിനെക്കുറിച്ച് പറയാണെങ്കില് ഗ്രാമത്തില് നമുക്ക് ഗ്രൗണ്ട്കളുടെ ഒരു ഒരു ലഭ്യത വളരെ അധികാണ് പട്ടണത്തിലെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ നമുക്ക് എവിടെ നോക്കിയാലും ഒരു ഒരു ചെറിയ ഗ്രൗണ്ടങ്കിലും ഉണ്ടാകും കുറച്ച് പിള്ളേർക്കൊന്ന് എൻജോയ് ചെയ്യാനും അങ്ങനെ പക്ഷേ പട്ടണത്തിലതൊന്നും ഇല്ല എല്ലാം ബിൽഡിങ്സും എല്ലാം ആയിട്ട് എന്താണ് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേങ്കില് ഇനി ഇങ്ങോട് ടർഫർഫക്കെ പോലെള്ള പൈസ കൊടുത്ത് നമ്മള് ഇത്ര മണിക്കൂറിന് കളിക്കുന്നത് അങ്ങനെ ഒരു ഇതിലേക്ക് പട്ടണത്തില് അതൊരു അതൊരു അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനായിട്ടുള്ളൊരു ഇത് വരെ ഇണ്ടായി ടർഫിലൊക്കെ നമ്മള് പോയി കളിക്കുക മണിക്കൂറിനിങ്ങനെ പൈസ വച്ച് പൈസ കൊടുത്ത് കളിക്കുക ഫ്രണ്ട്സെല്ലാവരും കൂടെ അതും ഒര് ഇത് തന്നെയാണ് പക്ഷേങ്കില് ഗ്രാമത്തിലെ കളികൾക്കും കളികളില് ഒരു പ്രത്യേക ഒരു സുഖം തന്നെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ അഡ്വാൻസ്ഡായി പട്ടണത്തിലെ കളികള് കുറച്ചും കൂടെ പ്രഫഷണൽ രീതിയിലായി അത് വളരെ ഒരു നല്ലൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട് അതില് ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു ഗ്രാമത്തിലെ കളികളിലെ കൂട്ടായ്മ ഇതിലെന്തായാലും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം പട്ടണത്തിലെ രീതികളും ആ പട്ടണത്തിലെ അവർക്ക് അങ്ങനെ അങ്ങനേ ചെയ്യാൻ പറ്റുകയുള്ളു ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് രണ്ടും രണ്ട് ജനറേഷനിലും കളികളെല്ലാം നടക്കുന്നുണ്ട് അതിന് ഒരിതും ഇല്ല